കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ പഴയ മൊബൈലുകളായിരുന്നു നിലവിലുള്ള സ്മാർട്ട് ഫോണുകളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല കുഞ്ഞ് കീപാഡ് സെയ്സിലുള്ള ഫോണുകളായിരുന്നു ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഇപ്പം അതിനൊക്കെ മാറ്റിയിട്ട് നല്ല നല്ല സ്മാട്ട്ഫോണുകളും അതൊക്കെ വന്നത്കൊണ്ട് അത്കാരണം അതിനകത്ത് പിന്നേ എനിക്കിപ്പം എൻ്റെ സിമ്മ് ജിയോയാണ് ജിയോയുടെ സിമ്മാണ് ഉപയോഗിക്കുന്നത് അത്കൊണ്ട് പിന്നെ റീചാർജിനൊക്കെ പൈസയൊക്കെ ഒരുപാട് ആകുമെങ്കിലും അതിനകത്ത് ഈ ഈ നെറ്റ്വർക്കുകളൊന്നും ഉണ്ടായത് കൊണ്ട് നമുക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങള് മനസിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട് പിന്നേ അതിനിപ്പോൾ എനിക്ക് ഒരു മാസം ചിലവഴിക്കേണ്ടത് നേരത്തെ നൂറ്റീ തൊണ്ണൂറ്റൊമ്പതിന് ഇപ്പം ഇരുന്നൂറ്റീ മുപ്പത്തി ഒമ്പത് അത്രയും രൂപയാന്ന് തോന്നുന്നു അല്ല ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊ അങ്ങനെ അത്രയാ തോന്ന് ഞാ ചാർജ് ചെയ്യുന്നത് ഒര് ഇരുപത്തിയെട്ട് ദിവസത്തേക്കുള്ള ഇത് നെറ്റിൻ്റെ ചാർജ് അത്രയാണ് നേരത്തെ അത്രയും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇച്ചിരിയും കൂടി പൈസ ആകുന്നുണ്ട് മുന്നൂറ് രൂപയ്ക്കെങ്ങാണ്ട് ഒര് രൂപയുടെ വ്യത്യാസം അത്രയെ വരുന്നുള്ളൂ പക്ഷേ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഇപ്പം ദാണ്ട വയനാട്ടിലൊക്കെ ഉരുള് പൊട്ടിയില്ലേ അത് ലൈവായിട്ട് കാണാനും അപ്പോഴുള്ള വാർത്തകൾ പെട്ടെന്ന് കാണാനും ലൈവായിട്ട് കാണാനും കേൾക്കാനും പറ്റി നമുക്ക് ഒത്തരി സങ്കടകരമായ കാര്യങ്ങളാണ് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ദൂരെ സ്ഥലത്ത് നിന്നൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ പൈസ രാത്രിയിലാണെങ്കിൽ പെട്ടെന്നൊരാവശ്യം വരുമ്പോഴത്തേനും പിന്നെ ബാങ്കിലൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഗൂഗിൾ പേ പോലുള്ള സമ്പ്രതായങ്ങളൊക്കെ വന്നതുകൊണ്ട് പെട്ടെന്നവർക്ക് പൈസ അയച്ച് കൊടുക്കാൻ ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള മനുഷ്യരെയൊക്കെ നമുക്ക് കാണാനും പണ്ടൊക്കെ വരുമ്പോഴൊക്കെയല്ലെ നമുക്ക് കാണാൻ പറ്റത്തുള്ളു ഇപ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് അവരേ എന്നും നെറ്റിലൂടെ വീഡിയോകോളാണേലും അതൊക്കെ കാണുകയും വീഡിയോ കോൾ ചെയ്യുമ്പം കാണുകയും ഒക്കെ ചെയ്യാം അങ്ങനെ ഒരുപാട് സാധ്യതകൾ സ്മാർട്ട് ഫോൺ വന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പക്ഷെ പണ്ട് അത് അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും ഒരു എഴുത്തൊ ഒക്കെ അല്ലേ ഉള്ളൂ ഒരെഴുത്ത് അവിടെ പോയിട്ട് തിരിച്ച് വരും എത്ര നാള് അവിടെ അത്പോലെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിയാതെ നമുക്ക് അവരെ കാണാന് കൊച്ചുങ്ങളൊക്കെ പഠിക്കാനോ ദൂര സ്ഥലത്ത് പോയാലോ കാണാനൊന്നും പറ്റത്തില്ല ഇപ്പം കുഞ്ഞുങ്ങളുടെ കൈയിലാണെങ്കിലും എല്ലാവരുടേയും കയ്യിൽ ഈ ഫോൺ ഉള്ളത് കൊണ്ട് അവരെ പെട്ടെന്ന് കാണാനു എടുക്കാനും അവരോടുള്ള സംസാരിക്കാനും ആശയവിനിമയം നടത്താനും നമുക്ക് പറ്റുന്നുണ്ട് അതു ഒത്തിരി സഹായിക്കുന്നുണ്ട് പിന്നെ നെറ്റ് പൊതുവേ ഇത് നെറ്റ്വർക്കിൻ്റെത് ഇച്ചിരി സ്ലോ ആണ് ആണെങ്കിലും കുഴപ്പമില്ല എല്ലം ചെലപ്പൊഴൊക്കെ എന്തേലും പ്രകൃതിയിലൊക്കെ എന്തേലും വെരിയേഷനൊക്കെ വരുമ്പോഴ് അതിനകത്ത് പിന്നെ എന്തുവാ ഇത് ഇത് എന്താ അതിന് പറയുന്നത് എന്തോന്ന് നെറ്റിൻ്റെ പ്രോബ്ലം വരുമ്പോഴത്തേനും ഇത് കിട്ടാറില്ല അത്രയും ഉള്ളു അല്ലാതെ വലിയ പ്രശനമൊന്നുല്ല എവിടേലും നമ്മള് നിക്ക് റെയ്ഞ്ച് റെയ്ഞ്ച് കിട്ടാറില്ല അത്രയും ഒക്കെ ഉള്ളു ചില സമയങ്ങൾല് അല്ലാതെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നമ്മള് ഇപ്പം മാക്സിമം മുന്നൂറ് രൂപ കൊടുക്കുമ്പഴത്തേനും നമുക്ക് ഇരുപത്തെട്ട് ദിവസം എല്ലാം നല്ല കാര്യങ്ങളൊക്കെ അതി കാണാനും ദുർയോഗം ചെയ്യരുത് അല്ലാതെ എല്ലാ കാര്യങ്ങളൊക്കെ അതിൽ കാണാനും കേൾക്കാനും പഠിക്കാനും യൂറ്റൂബിലോടൊക്കെ വലിയ ഓൺലൈൻ വരുമാനമൊക്കെ ഓരോര്ത്തര് നടത്തുന്നുണ്ട് അത്പോലെ തയ്യല് വരുമാനമോ അതൊക്കെ അതൊക്കെ പഠിക്കാനും കാര്യങ്ങൾ പഠിക്കാനൊക്കെ നമുക്ക് ഇത്കൊണ്ട് സാധിക്കുന്നുണ്ട് ഒത്തിരി ഇതാണ് പണ്ടെന്ന് വെച്ചാൽ കുഞ്ഞു ഫോണിൽ കൊണ്ട് നമുക്ക് വിളിക്കാൻ മാത്രമെ പറ്റത്തുള്ളായിരുന്ന് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒരുപാട് കാര്യങ്ങള് ഈ ഫോണുമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്